രണ്ടുലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട്